മീറ്റ് ഷോപ്പ് അല്ലെ ആ ആ ആ അപ്പം ഇത് ആരാണ് സംസാരിക്കുന്നത് അവിടുത്തെ ഓണറാണോ ആ അ അ അ ഞാൻ ഇവിടെ ഇതിന് അടുത്ത് നിന്നാണ് വിളിക്കുന്നത് എനിക്ക് കുറച്ച് മീൻ വേണമായിരുന്നു അപ്പോൾ അവിടെ അത് ഉണ്ടോ ഇല്ലേ എന്നറിയാനായിട്ടായിരുന്നു എന്നതൊക്കെ മീനാണ് ഉള്ളത് വലിയ മീൻ വല്ലതും ഉണ്ടോ അവിടെ ഓലക്കൊടിയനോ ഓലക്കൊടിയന് എന്താണ് വില അതെയോ നമുക്ക് ചില കൂന്തൽ വേണമായിരുന്നു കൂന്തൽ എടക്കുവാണെങ്കിൽ വില എന്തെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ മ്മ് മ്മ് വില നമുക്ക് കുറച്ച് പത്ത് പേര് വരുന്നുണ്ടായിരുന്നു ആപ്പം കുറച്ച് മീൻ മേടിച്ച് റെഡി ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു വില ഒക്കെ എങ്ങനെ ആണെന്ന് അറിഞ്ഞിട്ട് മേടിക്കാമെന്ന് ഓർത്തായിരുന്നു നമുക്ക് അത് അന്നേരം അത് നിങ്ങളത് നല്ല ക്ലീനാക്കി പീസാക്കി തരികയില്ലെ

അതെ അതെ ആ നിങ്ങൾക്ക് ഹോം ഡെലിവറി ഉണ്ടോന്നേ ഹോം ഡെലിവറി ഉണ്ടോ ആയിക്കോട്ടെ ആയിക്കൊട്ടെ അപ്പോൾ മീനിൻ്റെ അളവ് ഞാൻ പറയാം അപ്പോൾ തുക എത്രയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി അത് ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം അ ലൊക്കേഷൻ ഞാൻ അയച്ചേക്കാം അപ്പോൾ ഒന്ന് സാധനം അങ്ങോട്ട് എത്തിച്ചാൽ മതി ഏകദേശം എത്ര സമയം എടുക്കുവായിരിക്കും സ്ഥലം ഷോപ്പായിട്ട് ഒരൂ രണ്ട് കിലോമീറ്റർ അകലമേ ഉള്ളൂ

അ ഉവ്വ് ഉവ്വ് അ അപ്പം നമുക്കൊരു പത്ത് കിലോ മീൻ വേണം അത് ചെറിയ പീസാക്കി അതിൻ്റെ തുക എത്ര ആണെന്ന് പറഞ്ഞാൽ പറഞ്ഞേച്ചാൽ മതി ലൊക്കേഷൻ ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് പൈസ ഞാൻ അക്കൗണ്ട് നമ്പർ ഇട്ടേച്ചാൽ മതി ഞാൻ അതിലേക്ക് ഗൂഗിൾ പേ ചെയ്തേക്കാം ചെറിയ കക്ഷണം ആയിട്ട് മതി സാറേ

ഗൂഗിൾ പേ ചെയ്തേക്കാം ഗൂഗിൾ പേ ചെയ്തേക്കാം ഒക്കെ ഓക്കെ ആയിക്കോട്ടെ ശരി ശരി ശരി ഓക്കേ ഓക്കേ ഓക്കെ ശരി ശരി ശരി ആയിക്കോട്ടെ ആയിക്കോട്ടേ ആയിക്കോട്ടേ ആയിക്കോട്ടേ ശരി ശരി